ഞങ്ങൾക്കിവിടെ സ്റ്റേഡിയംന്നൊക്കെ വെച്ചുകഴിഞ്ഞാൽ സ്റ്റേഡിയം ഉണ്ട് കൃഷണഗിരി സ്റ്റേഡിയം ഉണ്ട് രാത്രി ആൾക്കാരൊക്കെ കളിക്കാറുണ്ട് അതേപോലെതന്നെ വലിയ ഗ്രൗണ്ട് വെച്ചാൽ ഹൈസ്ക്കൂളുണ്ട് മാനന്തവാടി ഉണ്ട് കാട്ടിക്കുളം ഉണ്ട് എടവകേലുണ്ട് അതുപോലെ എടവകേൽ ഷട്ടിൽ കോർട്ട് ഇതുണ്ട് അതുപോലെ പാലമുക്ക് എന്നുപറഞ്ഞ സ്ഥലത്ത് ഫുട്ബോൾ കോർട്ട് ഉണ്ട് വെള്ളംകൊണ്ട് നല്ല ഇതുണ്ട് ഗ്രൗണ്ട് ഉണ്ട് അവിടൊക്കെ പോയിട്ട് കളിക്കാറുണ്ട് പിള്ളേര് ഏറ്റവും കൂടുതല് കളിക്കുന്നത് രാവിലെ വെളുപ്പിനെ ആയിരിക്കും ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കുക അതെപോലെതന്നെ രാത്രി കളിക്കും പിന്നെ കളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുട്ബോളൊക്കെയാണ് കളിക്കാറ് അത് രാത്രിയായിരിക്കും കൂടുതലും കളിക്കുക അങ്ങനെയൊക്കെയാണ് ഇവിടെ കളിച്ച് പോന്നത് പക്ഷെ എന്താ വെച്ചാല് വയലിലൊക്കെ കളിക്കുന്ന കുട്ടികളാണ് ഇപ്പളും കൂടുതലുള്ളത് സ്റ്റേഡിയത്തിലൊക്കെ കുട്ടികള് വരുന്നതൊക്കെ കുറവാണ് അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അല്ലാ ഗെയിമിംഗ് ഒക്കെ രാത്രി ഒരുമണി വരെയൊക്കെ കുട്ടികള് കളിക്കാനൊക്കെ വരും കുറെയൊക്കെ പിള്ളേരുണ്ടാവും കളിക്കാനൊക്കെ ഇടക്ക് മത്സരൊക്കെ വെക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്